വാർത്താ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ടിവി ഇൻറ്റർനെറ്റ് അതുപോലെയുള്ള കാര്യങ്ങളാണ് റേഡിയോ എന്നു പറയുന്നത് ഒരു കാലഘട്ടം ഇത് ഇന്ന് നമുക്ക് ഔട്ടായി പോയ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ പത്രം പത്രമാണെങ്കിൽ പഴയ ഒരു രീതി അനുസരിച്ചു ഇപ്പം ആൾക്കാർ പത്രം വായിക്കാറില്ല ഏത് വാർത്ത ആണെങ്കിലും ടിവിയിൽ ഉണ്ട് വരും അല്ലേ ഇൻ്റർനെറ്റ് നോക്കിയാൽ യൂട്യൂബ് അങ്ങനെയുള്ള ഏത് ഫ്ലാറ്റ്ഫോം നോക്കിയാലും അവർക്ക് വാർത്തകൾ കിട്ടും അതുകൊണ്ട് പത്രം എല്ലാവരും ആൾക്കാരും കുറച്ചു കുറച്ചു കൊണ്ടു വരികയാണ് പഴയ ദൂരദർശൻ്റെ പരിപാടികൾ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ദൂരദർശൻ ചെയ്തിരുന്നതെന്നു വച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അവരുടെ അഭിരുചിക്ക് അനുസരിച്ചു വേണ്ട കാര്യങ്ങളാണ് ദൂരദർശൻ നടത്തിക്കൊണ്ടിരുന്നത് ദൂരദർശനിലെ വാർത്തകൾ ആണെങ്കിലും വലിച്ചു നീട്ടിയുള്ള വാർത്തകൾ അല്ല അവർ വാർത്തകൾ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവർ വാർത്തയിലൂടെ ജനങ്ങൾക്ക് ഇടയിൽ എത്തിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ത് കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റ് വാർത്ത അധിഷ്ഠിത മറ്റു പരിപാടികളാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബോറടി മാറ്റാൻ അങ്ങനെയുള്ള ഒന്നും അല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ദൂരദർശൻ ചെയ്തു കൊണ്ടിരുന്നത് ഇന്ന് ഇപ്പം ദൂരദർശൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള പരിപാടികളെ അപേക്ഷിച്ചു ഇന്നത്തെ പരിപാടികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകൾ അല്ലെങ്കി ടിവിയിലെ പ്രോഗ്രാം നടത്തുന്ന അവരുടെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നൊന്നും അവർ നോക്കുന്നൊന്നുമില്ല അവർക്ക് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആളെ ഇത് റേറ്റിങ് കൂട്ടുക ആ രീതിയിലുള്ള വാർത്തകളും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് പ്രധാനമായിട്ടും വന്നു കൊണ്ടിരിക്കുന്നത് ഏത് വാർത്തയാണെങ്കിലും മറ്റു പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമുകൾ ആണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കണമെന്നൊന്നും അവർക്ക് ഇല്ല അവർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചു ഉള്ള കാര്യങ്ങളാണ് ഇന്ന് ടിവികളിലും അല്ലേ ഇൻ്റർനെറ്റ് നോക്കിയാൽ പോലും എല്ലാം അങ്ങനെയുള്ള വാർത്തകളും കാര്യങ്ങളുമാണ് വന്നു കൊണ്ടിരിക്കുന്നത് അത് അതേ ഈ ടിവിയിലേയും ഇൻറ്റർനെറ്റിലേയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടും കണ്ടുമാണ് ഇന്നത്തെ സമൂഹം സമൂഹത്തിലുള്ള പ്രശ്നങ്ങക്കെല്ലാം കാരണം ഈ ടിവിയിലും ഇൻ്റർനെറ്റിലും വരുന്ന വാർത്തകളോ അല്ല അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും കൊണ്ടാണ് ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും കാരണം മൂലകാരണം എന്നു പറയുന്നത് ഈ വാർത്താമാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് പണ്ടത്തെ കാലത്ത് മാതാപിതാക്കളും കുട്ടികളും അല്ലെ എല്ലാവരും ഒരുമിച്ചു ഇരുന്ന് ടിവിയിലെ പ്രോഗ്രാം കാണുകയും അതിനെ പറ്റി ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇന്ന് ഇൻറ്റർനെറ്റിലോ അല്ലെങ്കിൽ മറ്റേ കാര്യ ടിവിയിലൊക്കെ ആണെങ്കിൽ പോലും എല്ലാവർക്കും കൂടെ ഒരുമിച്ചു ഇരുന്ന് കാണാൻ പറ്റിയ പ്രോഗ്രാമുകളെന്നു പറഞ്ഞാൽ വളരെ കുറവാണ് വയലൻസുകളെന്നു പറഞ്ഞാൽ പല പരിപാടികളും ഇൻറ്റർനെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് മാത്രമേ അങ്ങനെയുള്ളതേ ഉള്ളു അപ്പം കുട്ടികളും യുവാക്കളുമൊക്കെ അതിലേക്ക് ഇതിൻ്റെ അടിമകളായി ഈ ഇതിൻ്റെ ഇതിന് അടിമയായി തീരുന്നതു പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുമാണ് അതാണ് പണ്ടത്തെ ദൂരദർശൻ്റെ പരിപാടികളും ഇപ്പോഴത്തെ ടിവി ഇൻറ്റർനെറ്റ് മറ്റു അങ്ങനെയുള്ള കാര്യങ്ങൾ വച്ചു നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം അതാണ് പത്രം പത്രം എന്നു പറഞ്ഞാൽ പണ്ടും ഇന്നും ഒക്കെ ഏകദേശം വലിയ മാറ്റം ഇല്ലാതൊക്കെയാണ് പോകുന്നത് എന്നാൽ പോലും വാർത്തകളൊക്കെ നൂറ് ശതമാനവും സത്യസന്ധമാണ് എന്ന് നമുക്ക് ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല കുറേ വാർത്തകൾകൊക്കെ മാധ്യമ പ്രവർത്തകൻ്റെ ധർമ്മം അനുസരിച്ചു കുറേ കാര്യങ്ങളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ പഴയ കാല പരിപാടികളായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചു അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചു നമുക്ക് ഉൾക്കൊള്ളുവാനും പറ്റിയ കാര്യം എന്ന് പറയുന്നത് പഴയ പരിപാടികളായിരുന്നു ഇപ്പോഴത്തെ പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റേറ്റിങ് കൂട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് വാർത്ത മെയിൻ ആയിട്ട് ഈ വാർത്തകളിലൊക്കെ വന്നു കൊണ്ടിരിക്കുന്നത്